ആ പറഞ്ഞോളൂ ആ അതെ പറയൂ ആ ഓക്കെ മഴ എന്തേലും നനഞ്ഞിരുന്നോ ആ ഓക്കെ ഒക്കെ അപ്പോൾ എന്തേലും ഗുളിക എന്തേലും കഴിച്ചിരുന്നോ

അവർക്ക് എങ്ങനെ ഉണ്ട് കുറവുണ്ടോ കുറവുണ്ട് ഗുളിക കഴിച്ചിട്ട് മാറ്റം ഒന്നും ഇല്ല അല്ലെ

ആ ഓക്കെ നിങ്ങള് പാരസെറ്റാമോളാണോ കഴിച്ചത് ആ എത്ര എണ്ണം കഴിച്ചു രണ്ടെണ്ണം കുറവൊന്നും ഇല്ല കുറവൊന്നും ഇല്ല എന്നിട്ടും ആ ഓക്കെ നിങ്ങളുടെ പേരെന്തായിരുന്നു ഹോസ്പിറ്റലിലേക്ക് വരുന്നതിന് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ ആ ഓക്കെ അപ്പോൾ നാളത്തേക്ക് എത്താൻ പറ്റുവായിരിക്കും അല്ലേ ആ പറ്റുവല്ലേ അപ്പോൾ നാളെ വന്നാൽ മതി എന്തേലും ബുക്ക് ചെയ്യുന്നുണ്ടൊ ഇപ്പോൾ ആ ഓക്കെ എന്നാൽ ഒരു നാളെ ഒരു പതിനൊന്ന് മണിയോടുകൂടി എത്താൻ പറ്റുവായിരിക്കും അല്ലേ ആ ഓക്കെ അപ്പോൾ നാളത്തേക്ക് ഞാന് ഇവിടെ ഡോക്ടറിന് ബുക്ക് ബുക്ക് ചെയ്തിടാം ആ കുട്ടികൾക്കുള്ള ഡോക്ടറുണ്ട് അതും വേണമെങ്കിൽ വരുമ്പത്തേക്കും നമുക്ക് എന്താ കുട്ടികൾക്കങ്ങനെ തിരക്കുള്ള സമയമല്ല അപ്പോൾ നമുക്ക് നേരത്തേതന്നെ ചെയ്യാൻ പറ്റും നേരിട്ട് വരുമ്പം തന്നെ നമുക്ക് ചെയ്താൽ മതി വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അത് ചിലപ്പോൾ കാലാവസ്ഥേൻറ്റെ എന്തേലും ആയിരിക്കും ആ അത് ഈ കാലാവസ്ഥയുടെ ആയിരിക്കും എന്തായാലും വന്ന് കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്താൽ മതി നമുക്ക് വന്ന് കഴിഞ്ഞാൽ നോക്കാം എന്തായാലും വേറെ എന്തേലും ബുദ്ധിമുട്ട് അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ നാളെ വരുമ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി ആ ഓക്കെ പിന്നേ എന്തെങ്കിലും വേറെ എന്തേലും റെഫർ ചെയ്യാനുണ്ടെങ്കിൽ ഞാന് നാളെ വരുമ്പോൾ പറഞ്ഞ് തരാം നമുക്കൊന്നും പ്രോപ്പറായിട്ടൊന്നും പരിശോധിക്കാതെ നമുക്കങ്ങനെ ക്ലിയർ ആയിട്ടൊന്നും പറയാൻ പറ്റില്ല ഓക്കെ എന്തായാലും നാളെ വരുമ്പോൾ പറഞ്ഞാൽ മതി ഓക്കെ എന്നാൽ ആയിക്കോട്ടേ ഈ നമ്പറില് കോൺടാക്ട് ചെയ്താൽ പോരെ ഞാൻ റെസിപ്പ്റ്റ് തയ്യാറാക്കുമ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്തോളാം ആ ഓക്കെ എന്നാൽ